ഒരു നീണ്ട ബൈക്ക് യാത്രയ്ക്ക് വേണ്ടി ഞാൻ കയ്യിൽ കരുതുന്ന സാധനങ്ങളുടെ ലിസ്റ്റും സാധനങ്ങളും ആണ് ഈ പറയുന്നത് കൂടെ കരുതുന്നതിൽ ഒരു ബാഗ് മുഖ്യമാണ് നീണ്ട യാത്രയിൽ ബാഗിൽ കുറേ സാധനങ്ങൾ ഉൾക്കൊള്ളിക്കാനും

സാധനങ്ങൾ കൂടെ കൊണ്ട് പിന്നെ വെള്ളം വെള്ളം ഒരു രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ എപ്പോഴും നന്നായിരിക്കും കാരണം വെള്ളം ഡീഹൈഡ്രേഷനെ പ്രിവെൻറ് ചെയ്യും ആൻഡ് എപ്പോഴും

പെട്രോളും കരുതേണ്ടതാണ് എപ്പോഴാണ് പണി വരിക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല പിന്നെ ഫോൺ ഫുൾ ചാർജ് ആക്കിയിരിക്കുക എന്നിട്ട് ഫോൺ പോക്കറ്റിൽ വെക്കുക ഫോൺ പോക്കറ്റിൽ സേഫായി ഇരിക്കുകയാണെന്ന് ഉറപ്പ് വരുത്തുക പിന്നെ ബാഗിൽ എന്തെങ്കിലും ഒക്കെ തുണികൾ വെക്കുക എ ഏന്തേലും സാഹചര്യങ്ങൾ വന്നാൽ വീണാൽ എന്ത് ചെയ്യാനാണ് അല്ലേ ചെയ് നന്ദി